ആ അതെ അതെ കരിമീൻ പപ്പാസ് ഉണ്ട് കരിമീൻ കറി ഉണ്ട് കരിമീൻ വറുത്തതുണ്ട് പിന്നെ ആ ചിക്കൻ ഫ്രൈ ഉണ്ട് നൂറ്

കരിമീൻ കറി വെച്ചതുണ്ട് തേങ്ങ അരച്ച് ബിരിയാണി ഉണ്ട് ചിക്കൻ ബി ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്

ആ ബിരിയാണി വേണ്ടേ കുഴിമന്തി ചട്ടിച്ചോറുണ്ട് വേണോ മത്തി ഫ്രൈ ഇല്ല പറ്റിച്ചതുണ്ട്

ആ കൊടുത്ത് വിടാം എപ്പോളത്തേക്കാണ് പന്ത്രണ്ടരയാവുമ്പം

ആ സ്ഥലം ഏദൻക ഏദൻ തോട്ടത്തിൻ്റെ അകത്തോട്ട് കയറി ആ എന്തായാലും അവിടെ വരുമ്പോൾ വിളിക്കാം ആ ബിൽ കൊടുത്ത് വിടാം ഓ അഞ്ച് അഞ്ച് ഐറ്റംസ് അല്ലേ അഞ്ച് ഐറ്റംസ് അല്ലേ കുഴിമന്തി കുഴിമന്തി മത്തി മത്തി പറ്റിച്ചത് മത്തി പറ്റിച്ചത് പ കരിമീൻ പപ്പാസ് കരിമീൻ കറി ആ മത്തി പറ്റിച്ചതും പിന്നെ കോഴി ചി ബിരിയാണി വേണ്ടേ ചിക്കൻ ബിരിയാണിയോ ഓക്കെ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഇതും ബീഫ് ബിരിയാണിയും

ആ തേങ്ങയും മുളക് പിന്നെ വറ മത്തി പറ്റിച്ചത് ആ പിന്നെ ബിരിയാണി ഐറ്റംസും ആ കുഴിമന്തി പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണിയും പത്ത് പൊറോട്ട ആ ആ ആൾ വരുന്ന് കൊണ്ടുപോവുമോ അതോ കൊണ്ടുവന്ന് തരണോ ആ ഇല്ല അവിടെ വന്ന് വിളിച്ചാൽ പോരേ ആ അപ്പം റോഡിലോട്ട് വരുമല്ലോ